ഒരു വലിയ പുസ്തകപ്രേമിയൊന്നുമല്ല ഞാൻ എന്നും തീരുമ്പോൾ തീരുമ്പോൾ ഓരോ പുസ്തകങ്ങൾ എടുത്തു വായിക്കുന്ന ഒരാളുമല്ല എന്നാലും ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ഒരു പുസ്തകം മറിച്ച് നോക്കാനും അത് കിട്ടിയ ഇരിപ്പിൽത്തന്നെ വായിച്ച് തീർക്കാനൊക്കെ ഇഷ്ടമാണ് ഒരു പുസ്തകം വായിച്ചു തുടങ്ങിയാൽ അത് തീരും വരെ ഇരുന്നു വായിക്കും എന്നല്ലാതെ അതാ വായിച്ച് തുടങ്ങാനെടുക്കുന്ന സമയം അതാണ് അധികം പണ്ടൊരിക്കൽ ഒരു പുസ്തകം വായിച്ചത് ഓർമയുണ്ട് പുസ്തകത്തിലെ ഉള്ളടക്കങ്ങളും ചെറുതായി ഓർമയുള്ളു എങ്കിലും ആ പുസ്തകത്തിൻ്റെ പേര് മാത്രം എത്ര ആലോചിച്ചിട്ടും ഓർമയിൽ വരുന്നില്ല കുറെ മുമ്പായതുകൊണ്ടായിരിക്കാം പക്ഷെ ആ പുസ്തകം വായിച്ചത് എന്തുകൊണ്ട് ഇത്ര ഓർമ എന്നാൽ അത് വായിച്ചപ്പോൾ ഞാനത് പ്രതീക്ഷിച്ചത് പോലെ ഒരു ഭാഷ ആയിരുന്നില്ല അത് മലയാള പുസ്തകങ്ങളാണ് ഇഷ്ടം മലയാളത്തിലെ സാമാന്യമായി നമ്മൾ സംസാരിക്കുന്ന ഭാഷയിലുള്ള പുസ്തകങ്ങളാണ് വായിച്ചതിലധികവും എന്നാൽ ഞാനീ പറഞ്ഞ പുസ്തകം മാത്രം അത് മലയാള ഭാഷയിലെ നമ്മൾ സംസാരിക്കുന്ന ഭാഷ ആയിരുന്നില്ല വളരെ കഠിനമായ സാഹിത്യഭാഷയിലായിരുന്നു ആ പുസ്തകം ഇടയിൽ കവിതകളും ഗദ്യങ്ങളും പദ്യങ്ങളും ഒരുപോലെ ഉള്ള ഒരു പുസ്തകം അതിലെ പദ്യങ്ങളെ മനസ്സിലാക്കുന്നത് പോയിട്ട് വായിച്ചെടുക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു സാമാന്യേന മലയാളത്തിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും വായിക്കാൻ തോന്നാറില്ലെങ്കിലും ഈ പുസ്തകം മാത്രം എന്തോ വായിക്കാൻ ഒരുപാടങ്ങ് ബുദ്ധിമുട്ടി ഒരുപാട് അതുകൊണ്ടായിരിക്കാം ആ പുസ്തകം വായിച്ചത് ഇന്നും ചെറിയരോർമ്മ ആ പുസ്തകത്തിനെപ്പറ്റി ഒരു കൂട്ടുകാരനുമായി ചർച്ച ചെയ്തത് ഓർമ വരുന്നു അന്നവൻ പറഞ്ഞു ഞാനുമാ പുസ്തകത്തെപ്പറ്റി കേട്ടിട്ടുണ്ട് ലൈബ്രറിയിൽ പോയപ്പോൾ കണ്ടു പക്ഷേ പുസ്തകം മറിച്ച് നോക്കിയപ്പോൾ ഒന്നും വായിക്കാൻ പറ്റാത്തത് കൊണ്ട് അവിടെത്തന്നെ വച്ചു അത് ഞാനോ ഞാൻ പക്ഷേ ഉളളല്ല തുറന്നത് ഞാനതിൻ്റെ പിന്നിലുള്ള ആമുഖം മാത്രമേ വായിച്ചുള്ളൂ അത് സാധാരണ ഭാഷയിലായതുകൊണ്ട് ഞാനാ പുസ്തകം എടുത്തു പക്ഷേ തുറന്നുനോക്കിയപ്പോൾ അതിലെ അക്ഷരങ്ങളൊന്നും പരിചിതമല്ല എന്ന് തോന്നി അങ്ങനെയൊരോർമ